ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ അഭിമാന നാളുകൾ തന്നെയാണ് സ്വാതന്ത്ര്യ ദിനം അഭിമാനത്തിൻ്റെയും ചരിത്ര നിമിഷങ്ങൾ തന്നെയാണത് ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ പ്രധാനപ്പെട്ട നാലും മതങ്ങൾ ഹിന്ദുമതം ബുദ്ധ മതം ജൈന മതം സിക്ക് മതം എന്നിവ ജന്മം എടുത്തത് ഇന്ത്യയിൽ തന്നെയാണ് കൂടാതെ ഒന്നാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ മൂന്ന് മതങ്ങളുണ്ട് ജൂത മതം ക്രിസ്തു മതം ഇസ്ലാം മതം എന്നീ മതങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരികത വൈവിധ്യത്തിന് അഴകേറിയത് ഒന്നാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ചരിത്രം കുറിച്ച് മറ്റൊരു നേതാവായിരുന്നു മഹാത്മാ ഗാന്ധിജി അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒരാളല്ല കാരണം അദ്ദേഹം സമാധാനത്തിലൂടെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത് അദ്ദേഹം ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ ഫലമായാണ് ആഗസ്റ്റ് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷ്കാരിയിൽ നിന്ന് വാങ്ങി തന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളുണ്ട് അതിൻറ്റേതായ സംസ്കാരവും ഭാഷയും ഉത്സവവും പാചകം പാചകരീതികളും വസ്ത്ര രീതികളും കൃഷി രീതികളും എന്നിങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ മഹാത്മാ ഗാന്ധിജി അല്ലാതെ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ സ്ത്രീകളും ഉണ്ട് അതായത് സരോജിനി നൈഡ കമല ന നെഹറു കസ്തൂർബ ഗാന്ധി അങ്ങനെ പലരും അങ്ങനെ നമുക്ക് ഇന്നന്ന ആളെന്ന് പറയാൻ കഴിയില്ല കാരണം ഒരുപാട് പേര് നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന സ്വാതന്ത്രത്തിന് വേണ്ടിട്ടൊന്ന് പോരാടിയ ആൾക്കാരാണ് അവരുടെ എല്ലാ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഈ നാട്ടിൽ സ്വാതന്ദ്രരായി ജീവിക്കുന്നതിന് കാരണം നമ്മുടെ നാടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സമത്വത്തിൻ്റെ ഒരു പ്രകൃതമാണ് നമ്മുടെ നാട് അവരോർക്ക് അവരോരുടെ ദ ഇഷ്ടത്തിനനുസരിച്ച് മതം മാറാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും നല്ലൊരു ചട്ടത്തിൻ്റെ കീഴിൽ ജീവിക്കുവാനുമുള്ള അവകാശം നമുക്ക് ഉണ്ട് ആരും ആരെയും ചോദ്യം ചെയ്യാതെ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നേടിത്തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഭരണ രീതിയിലായാലും നമ്മുടെ നാട് എന്നും എല്ലായിടത്തും ഒന്നാമതായാണ് ഏത് നാട്ടിൽ ചെന്നാലും ഒരു ഇന്ത്യക്കാരനായിരിക്കും അവിടെ ഒരു സ്ഥാനം അയാൾക്ക് എപ്പോഴും കാണും ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ അഭിമാനത്തോട് പറയാൻ കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന എനിക്ക് അഭിമാനവും ഉണ്ട് അതിന്റെതായ സന്തോഷവും ഉണ്ട് കാരണം ഇന്ത്യയിലാണ് ഞാൻ ജനിച്ചത് ഞാൻ ജീവിക്കുന്നതും ഇന്ത്യയിലാണ് ഇന്ത്യ എൻ്റെ രാജ്യവുമാണ് എല്ലാ ഇന്ത്യക്കാരും എനിക്ക് ഒരേ പോലെയാണ് ഞാൻ അവരെ വേർതരിച്ച് കാണുന്നില്ല എല്ലാവരും ഒന്നാണ് നമ്മുടെ നാട് ഒന്നാണ് അതേപോലെ തന്നെയാണ് ഇന്നും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നതും ഒരു വിലയേറിയ രൂപമാണ്